ഹലോ ശ്രീജ ട്രാവൽ ഏജൻസിയല്ലേ ആ ഞങ്ങൾക്കേ ഈയാഴ്ച്ച അവസാനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊന്ന് പോവണമായിരുന്നു അപ്പോൾ അതിന് ഒരു വണ്ടി വേണമായിരുന്നു അത് അത് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ ഞങ്ങൾ ഭർത്താവും ഭർത്താവും മക്കളും നാല് പേരെ ഉള്ളൂ അപ്പം ഞങ്ങൾക്കത് അനുസരിച്ചുള്ളൊരു വണ്ടിയാണ് വേണ്ടത് അതെ അത് ഞങ്ങൾക്ക് സ്വിഫ്റ്റ് മതി അതിൻ്റെ റേറ്റൊന്ന് പറയാമോ അത് ഒരൽപ്പം കൂടുതലല്ലേ ആ ഞങ്ങൾക്കേ രാവിലെ രാവിലെ പോവണം ഒരു നാല് മണിയൊക്കെയാവുമ്പം പോയാൽ ഒരേഴ് മണിയൊക്കെയാവുമ്പോൾ അവിടെ എത്തത്തില്ലേ ആ അപ്പോൾ റേറ്റിന് റേറ്റ് കുറച്ചും കൂടെ കുറക്കാൻ വല്ല മാർഗവുമുണ്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് വെയ്റ്റിംഗ് ചാർജ് വരുമോ ആ വീട് ഞങ്ങൾക്ക് അമ്പൂരി പള്ളീടെയപ്പുറം മൂന്നാമത്തെ വീടാണ് ഞങ്ങൾക്കേ മാക്സിമം എന്തെങ്കിലുമൊന്ന് കുറവ് ചെയ്ത് തരണം ആ രാവിലെ നാല് മണിക്ക് പോവാൻ പോവണം ഏഴ് മണിയാവുമ്പം അവിടെയെത്തണം അത് കണക്കാക്കി

ആ ഈയാഴ്ച്ച തന്നെ ഈയാഴ്ച്ച അവസാനം പോവണം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ